കോഴിയിറച്ചി ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള പല രീതികളുണ്ട് ഇത് അവയുടെ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകമാണ് ഉദാഹരണമായിട്ട് മൃഗങ്ങളെ അറക്കൽ നമുക്കറിയാം മൃഗങ്ങളെ അറക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പലപ്പോഴും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമായിരിക്കും കാരണം പലപ്പോഴും പഴ മാലിന്യങ്ങളുടെ മാലിന്യങ്ങളുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഈ മൃഗങ്ങളെ അറുക്കുന്നത് ഈ സമയത്ത് ഇറച്ചികൾ കെട്ടിത്തൂക്കി ഇടുമ്പോൾ അവിടെയുണ്ടാകുന്ന ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ ഇൻഫെക്ഷൻ വളരെയധികം ഈ മൃഗങ്ങളുടെ ഇറച്ചിയിലേക്ക് ബാധിക്കാനും അണുബാധയുണ്ടാകാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെത്തന്നെ കശാപ്പ് ചെയ്യുന്ന രീതി ചെയ്യുന്ന ആളുടെ വൃത്തി ഇതൊക്കെയും ആ ഒരു കോഴിയിറച്ചി ഉൽപ്പന്നങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെ വളരെയധികം മോശമായിട്ട് ബാധിക്കും അതിനാൽത്തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നവർ ആദ്യമായിട്ട് വ്യക്തിശുചിത്വം പാലിക്കണം അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്ന പരിസര ശുചിത്വവും ഉണ്ടായിരിക്കണം വളരെയധികം സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം ഈ കശാപ്പ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ മൃഗങ്ങളെ അറക്കുന്ന സമയത്താണെങ്കിലും ഗ്ലൗസുകൾ ഉപയോഗിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതുപോലെത്തന്നെ ഇറച്ചിയെന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി വേണം നമ്മൾ പരിപാലിക്കേണ്ടത് കാരണം ഇതിൽനിന്ന് അണുബാധയുണ്ടായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നതാണ് അതിനൊരുദാഹരണമാണ് നമുക്കറിയാം ഇപ്പം എപ്പോഴും നമ്മുടെ പത്രവാർത്തകളിൽ നിറഞ്ഞുനിൽക്കുന്നതാണ് ഷവർമയിൽ നിന്ന് അണുബാധയുണ്ടാവുന്നത് ഈ കോഴിയിറച്ചിയുടെ ഒരു ഉൽപ്പന്നമാണ് ഈ ഷവർമ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ധാരാളം പേർ ഇതിൽ നിന്ന് അണുബാധയ്ക്ക് ഇരയാകുന്നുണ്ട് അതുപോലെത്തന്നെ കോഴി ഇറച്ചിയുടെ പല ഉൽപ്പന്നങ്ങൾ ചില്ലി ചിക്കൻ ബിരിയാണി ഐറ്റംസ് അങ്ങനെ കോഴിയിറച്ചിയുമായിട്ട് ബന്ധം കോഴിയിറച്ചി കൊണ്ട് നമുക്ക് വളരെയധികം സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഇത് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കേറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് വൃത്തി എന്നു പറയുന്നതാണ് അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച്ചയും ഉണ്ടായിരിക്കരുത് ആ ഒരു ജീവിയെ കശാപ്പ് ചെയ്യുന്ന നിമിഷം മുതൽ അതൊരു ഉൽപ്പന്നമായി നമ്മുടെ ഹോട്ടലുകളിലോ നമ്മുടെ ഭക്ഷണത്തിന് മുമ്പിൽ നമ്മുടെ ടേബിളുകളിൽ എത്തുന്നത് വരെ നാം ആ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച്ചയും ഉണ്ടായിരിക്കരുത് കാരണം ഇതിൽ നിന്ന് അനേകജീവനാണ് അനേക ജീവനുകളുടെ സംരക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോസസ് ചെയ്യുന്ന ഈ രീതിയിൽ നിന്നുതന്നെ തുടങ്ങുന്നു ആദ്യമായി നമ്മൾ ശരിയായിട്ടുള്ള ഇതിൻ്റെ പ്രോസസ് രീതിയെന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മളിപ്പം കോഴി ഇറച്ചി ആണെങ്കിൽ ആദ്യമായി ആരോഗ്യമുള്ള ഒരു കോഴിയെ ഇതിനായിട്ട് നമ്മൾ സെലക്റ്റ് ചെയ്യുക എന്നതാണ് കാരണം ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ കയറിവരുന്ന കോഴികളിൽ അതിൻ്റെ ഹോർമോണുകളെ ഇഞ്ചക്ഷൻ ചെയ്ത് വളരെയധികം മോശമായ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കോഴികളെയാണ് അവർ കയറ്റുമതി ചെയ്യുന്നത് അപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ തന്നെ നമുക്കിതിനായിട്ട് ശക്തമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം ആരോഗ്യമുള്ള കൂടുതൽ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത കോഴികളായിരിക്കണം നമ്മൾക്ക് നമ്മളിലേക്ക് കേറി വരാനായിട്ട് അതുപോലെത്തന്നെ കോഴികളെ കൊണ്ടുവന്നാൽ അതിൻ്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതൊപ്പം അതോടൊപ്പം തന്നെ അതിനെ കശാപ്പ് ചെയ്യുന്ന രീതിയിലും നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കണം വ്യക്തി അതുപോലെ അത് കശാപ്പ് ചെയ്ത് അത് നമ്മളൊരു നമ്മുടെ ഭക്ഷണത്തിനാവശ്യമായ ഒരു വിഭവമാക്കുന്ന സമയത്തും നമ്മുടെ അടുക്കളയിലും കാര്യങ്ങളിലും എല്ലാം നമ്മൾ വളരെയധികം വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെ വളരെയധികം ബാധിക്കും അതുകാരണം ആ ഒരു മൃഗത്തെ കശാപ്പ് ചെയ്യുന്ന നിമിഷം മുതൽ അത് ഒരു ടേബിളിൽ ഒരു മനുഷ്യന് ആവിശ്യമായ സ്വാദിഷ്ടമായ വിഭവമാകുന്ന ആ നിമിഷം വരെ അതിൻ്റെ ഗുണനിലവാരത്തിൻ്റെ ഗുണനിലവാരമെന്ന് പറയുന്നത് ഒരു ജീവനെ തന്നെ ബാധിക്കുന്നതാണ് അതിനാൽ അതിനകത്ത് വളരെയധികം ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ട കാര്യമാണ്